ഹലോ ഊബർ കാബേജൻസിയല്ലേ ഞാനൊരു ക്യാബുക്കെയ്തിട്ടെനിക്ക് തോന്നുന്നു ഏകദേശം അര മണിക്കൂർ ഇപ്പോള് പൂർത്തിയായിട്ടുണ്ട് നിങ്ങള് ടൈം കഴിഞ്ഞതും പന്ത്രണ്ട് മിനുട്ടിനുള്ളിലെത്തുമെന്നാണ് ഓക്കെ ഞാനതിൻ്റെ ഡബിൾ അതല്ലെങ്കിലതിൻ്റെ രണ്ടിരട്ടി സമയം വെയിറ്റെയ്ത് കഴിഞ്ഞു ഞാനിവിടെ നില്ക്കുകയാണ് ഞാനിവിടെ അര മണിക്കൂർ നില്ക്കുകയാണ് ഈവൻ ഞാനിപ്പോള് നില്ക്കുന്ന സ്ഥലത്ത് എനിക്കിരിക്കാൻ പോലും ഒരു സ്ഥലം കിട്ടിയിട്ടില്ല അപ്പോള് ഞാൻ കാത്ത് നിന്ന് കാത്ത് നിന്ന് കാത്ത് നിന്ന് സീരിയസ് ശരിക്കും പറയാണെങ്കില് ഞാൻ മടുത്തു ഇവിടെ പാ ഇവിടെ മീൻസ് അങ്ങനെ ആൾക്കാരൊക്കെയുള്ളൊരു സ്ഥലമല്ല ഇത് രാ സമയം വൈകുന്നു ആറുമണി ആറരയാവാറായി ഞാനഞ്ച് ഇരുപതായപ്പോള് ബു അഞ്ച് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബുക്കെയ്തതാണ് ഇത്ര സമയമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു ഓക്കെ ഇനിയാ ഡ്രൈവറെത്തിയില്ല അതെനിക്ക് മനസിലാക്കാം കാരണം ഇവിടേക്കെത്താനുള്ള ഗതാഗത ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ പക്ഷെ എന്നെയതൊന്ന് കോണ്ടാക്ട് ചെയ്ത് അറിയിക്കണ്ടേ അല്ലെങ്കില് ഞാന് വിളിക്കുമ്പോള് ഓക്കെ ഇത്ര സമയത്തിനുള്ളില് ഞാനെത്തും ഇതിപ്പോള് ഞാന് വിളിച്ചിട്ട് ഞാനാ നിങ്ങള് ത അവയിലബളായിട്ടുള്ള നമ്പറില് വിളിച്ചിട്ട് അത് കിട്ടുന്നില്ല ഗൂഗിളിൽ ലൊ ഗൂഗിളിൽ നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് റീചെയ്തതായിട്ട് കാണുന്നില്ല എന്താണ് നിങ്ങളിത്രയും പേർ വലിയൊരു ഏജൻസിയാവുമ്പൊള് അതിനൊരു ഓൾട്ടർനേറ്റീവ് പരിഹാരം ചെയ്ത് തരണ്ടെ ഞാനിവിടെ നിന്നു ഇപ്പോള് രാത്രി ഏഴു മണിയായി എട്ടുമണിയാ ഒമ്പത് മണിയായി പത്തുമണിയായി പതിനൊന്നുമണിയായാലും എത്ര മണിക്കൂർ നില്ക്കണോന്നവിടെ ഞാൻ എത്ര മണിക്കൂർ നില്ക്കാൻ തയ്യാറാണ് പക്ഷെ എത്ര മണിക്കൂർ നില്ക്കണമെന്ന് നിങ്ങൾ അതായി അതിനെപ്പറ്റി എന്നോടറിയിക്കൂ അപ്പോള് ഒന്നെങ്കിൽ ഒരു മിനുറ്റിനുള്ളിലെത്തുക അല്ലെങ്കില് ഇത് എവിടെയെത്തിയെന്ന് നേരിൽ പറയുക ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്യുക തിരിച്ച് വിളിക്കുക അങ്ങനത്തെ കേസുകളൊന്നും എനിക്ക് കേൾക്കണ്ട അല്ലെങ്കില് വേണ്ട എനിക്ക് ഞാൻ ഓൾട്ടനേറ്റീവായിട്ട് വേ ഞാൻ പകരം വേറെന്തെങ്കിലും വഴി നോക്കിക്കോളാം ഞാൻ ബുക്കെയ്ത എൻ്റെ ക്യാബ് അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാനടച്ച എൻ്റെ പണം എത്രയും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് തിരികെ എത്തിക്കുക അതാണെൻ്റെ ആവശ്യം അതെത്രയും പെട്ടെന്ന് നടത്തിത്തരിക മനുഷ്യൻ്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ടെന്നുള്ള കാര്യം നിങ്ങള് മനസിലാക്കണം ഓ ഇവിടെ എനിക്കിരിക്കാന് പോലൊരു സ്ഥലമില്ല ഒരു ഗ്രാമപ്രദേശമാണ് ധാരാളമായെന്നെ കൊതുക് കടിക്കുന്നുണ്ട് ഞാനനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് ഓക്കെ നിങ്ങളൊരു സമയം നിങ്ങളെന്തിനാണ് പന്ത്രണ്ട് മിനിറ്റെന്നൊരു സമയം വെച്ചത് പ്രതീക്ഷ നൽകുന്നതെന്തിനാണ് ഓക്കെ നിങ്ങളരമണിക്കൂര് വന്നു ഞാന് അരമണിക്കൂര് വെയിറ്റെയ്യാന് തയ്യാറാണ് ഒരുമണിക്കൂര് വെയിറ്റെയ്യാന് തയ്യാറാണ് പക്ഷെ എനിക്കൊരു സമയം പറ അല്ലെങ്കില് എന്നിലേക്കെത്തിത റീച്ചീയ്യുന്നോ അല്ലെങ്കില് വിളിച്ച് ഫോണെടുത്ത് എന്താണ് താമസം അതിനുള്ള കാരണം പറയൂ അത് മനസ്സിലാക്കാനുള്ള ഞാനും മാ മനുഷ്യനാണ് അത് മനസ്സിലാക്കാനായുള്ള ബോധവും വിവരവും കാര്യവിബ ബ ബ കാരണങ്ങളും എനിക്കറിയാം അതുകൊണ്ട് വ ഇത്രയും മര്യാദയില്ലാതെ എന്നോട് പെരുമാറിയ സ്ഥിതിക്ക് ആ ക്യാബ് ഇതാ ഈ നിമിഷം ക്യാൻസല് ചെയ്തോളു